ഓ എന്നാണ് വരാൻ പോവുന്നത് തിരുവനന്തപുരത്ത് ഒരുപാട് നദികളുണ്ട് ആ പിന്നെ നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ ഒരു മൃഗശാലയുണ്ട് നമുക്ക് ശംഖുമുഖം കടൽത്തീരത്ത് പോവാം ശംഖുമുഖം ഉണ്ട് കോവളം ഉണ്ട് ബീച്ചുകളുണ്ട് പിന്നെ നിങ്ങൾ എത്ര പേര് ആണ് വരണത് ഓക്കെ ആ ഏത് എങ്ങനെ ആണ് വരുന്നത് ട്രെയിനിലാണോ ഓ ഓ അല്ല എത്രപേർ ഒന്ന് കൂടി പറയുമോ അപ്പോൾ നിങ്ങളുടെയോ ഫുഡ് ആൻ്റ് അക്കോമഡേഷനൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്യട്ടെ പിന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യങ്ങളുണ്ടോ ഓക്കെ പിന്നെ നിങ്ങൾ ആദ്യം എവിടെയാണ് പോവാൻ ഉദ്ദേശിക്കുന്നത് എന്നു വച്ചാൽ ബീച്ചിലാണോ അല്ല നിങ്ങൾക്ക് വേറെ എവിടെ എങ്കിലും ഓക്കെ ഇപ്പോൾ പിന്നീട് നിങ്ങൾക്ക് പൊന്മുടി പോലുള്ള മലയോര പ്രദേശങ്ങളൊക്കെ ഉണ്ട് അത് നമ്മുടെ തിരുവനന്തപുരത്ത് പിന്നെ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് പ്രധാനപ്പെട്ട പത്മനാഭസ്വാമി ക്ഷേത്രം പോലെയുള്ള ക്ഷേത്രങ്ങൾ പിന്നെ ആറ്റുകാൽ ക്ഷേത്രം അപ്പോൾ നിങ്ങൾക്ക് അവിടെയൊക്കെ പോവാൻ താൽപ്പര്യം ഉണ്ടോ ഓക്കെ ആ പിന്നെ പള്ളികളൊക്കെ ഉണ്ട് കേട്ടോ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ മാത്രമല്ല അവിടെ എല്ലാവരും പോവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇത് നല്ലൊരു അവസരമായി കണ്ട് പോകാവുന്നതാണ് ഓ തീർച്ചയായിട്ടും പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എന്നു വച്ചാൽ നിങ്ങൾ കാണാൻ താൽപ്പര്യമുള്ള ഏതെങ്കിലും ടൈപ്പ് സ്ഥലങ്ങളുണ്ടോ ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അങ്ങനത്തെ സ്ഥലങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ ഡാമുകളിലൊക്കെ പോവാൻ കാണാൻ താൽപ്പര്യം ഉണ്ടോ നെയ്യാർ ഡാമൊക്കെ ഉണ്ട് പേപ്പാറ ഡാമുണ്ട് ആ പാർക്ക് ഓ ഉണ്ട് ഉണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ മ്യൂസിയം ഇവിടെ പാർക്ക് ഉണ്ട് അല്ലാതെ തന്നെ നമ്മൾ ബീച്ച് ശംഖുമുഖത്ത് ബീച്ച് പോവുകയാണെങ്കിൽ അവിടെയും പാർക്കൊക്കെ ഉണ്ട്